കുറച്ചു കാലമായിട്ട് അതായത് ഒരു രണ്ടായിരത്തിപ്പതിനഞ്ച് കാലഘട്ടത്തിന് ശേഷമാണ് യൂട്യൂബേഴ്സിൻ്റെ എണ്ണം കൂടിയത് ഇന്ത്യയിൽ ഒത്തിരി പേരുണ്ടെങ്കിലും കേരളത്തിൽ എടുത്ത് നോക്കിയാൽ ഒത്തിരി ആൾക്കാരുണ്ട് അവർ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അതുമായിട്ട് മുന്നോട്ട് വരും കുക്കറി ഷോ ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് ചെറിയ ചെറിയ ആർട്ടായിട്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട് ട്രാവലിംഗ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നവരുണ്ട് പിന്നെ ഹാസ്യമായിട്ട് എന്തെങ്കിലും റീൽസ് പോലെ ചെയ്യുന്നവർ ചെറിയ ചെറിയ കണ്ടന്റ് ഉൾക്കൊണ്ട് വീഡിയോ എടുക്കുന്ന ഒത്തിരി പേര് അതവരുടെ ജീവിത മാർഗ്ഗം കൂടി ആയി അതിൽ നിന്ന് അവർക്കൊരു വരുമാനം കിട്ടുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാരും അതിനു ഇൻട്രസ്റ്റുണ്ട് എനിക്ക് വേറെ ജോലി തരാൻ ചെയ്യാൻ താല്പര്യമില്ല ഇങ്ങനെ എഡിറ്റിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്യാനാണ് ഇഷ്ടം എന്നു തോന്നുന്ന ഒത്തിരി യുവ തലമുറകളുണ്ടല്ലോ അവരൊക്കെ കൂടുതൽ ആൾക്കാരും ഈ യൂട്യൂബ് പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഓരോ കണ്ടന്റ് അതിന് അനുസരിച്ച് അവരോരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അതുകൊണ്ട് അവർക്ക് കുറേ ലേണിംഗ് കുറേ പൈസ അവർക്ക് കിട്ടുന്നുണ്ട് ഒരു മാസം അവർ വീഡിയോ ഇടുമ്പോൾ ഇത്ര വ്യൂ അവരുടെ വ്യൂവേഴ്സിൻ്റെ പിന്നെ ലൈക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒരു മാസത്തിലെ അവരുടെ പിന്നെ വരുമാനം വരുന്നത് ഒരു മാസം അവർ കണക്കാക്കുന്ന അവർ എത്ര വീഡിയോ ഇടുന്നോ അതിലെത്ര പേര് കാണുന്നു എത്ര ലൈക്ക് കിട്ടുന്നു അതിന് അനുസരിച്ചാണ് അവർക്ക് ആ മാസത്തെ ഒരു ലേണിംഗ് കിട്ടുന്നുണ്ട് അവരെന്ത് അങ്ങനെ ചെറിയൊരു വീഡിയോ ഇട്ടാൽ പോലും കുറേ പേര് കണ്ട് അത് ക്ലിക്ക് ആകുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർ പിന്നെ ഒരോരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നവരുണ്ട് ചിലവർ പിന്നെ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരെ ഓരോ നാടിനെക്കുറിച്ചു പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്

കൂടുതലും ജീവിതത്തിൽ പിന്നെ അവർ ഇങ്ങനെ ഓരോ അവർക്ക് ഓരോന്ന് വാങ്ങാനൊക്കെ ഒരു ജോലി നേടുക ഇതൊരു ജോലി പോലെ കാണുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കുന്നത് അത് അവരുടെ ജോലി ആയി കണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാതെ പിന്നെ അവരുടെ ഒരു ഫാഷൻ ആയി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്